ദുനിയാവ് റെസ്റ്റോറൻ്റല്ലേ ആഹ് ഞാനിപ്പോൾ വിളിച്ച ആളു തന്നെയാണ് എനിക്ക് നിങ്ങളുടെ സ്പെഷ്യലായിട്ടുള്ള മട്ടൻ ബിരിയാണി വേണമായിരുന്നു ആ ഒര് ബിരിയാണി മതി അല്ല എനിക്കെൻ്റെ ഫ്രണ്ട് അഞ്ചുവിനും കൂടി വേണമായിരുന്നു രണ്ട് ബിരിയാണി വേണം ആ അവളുടെ അവൾക്ക് ഈ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അവളുടെ ഈ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ ഡെലിവെറി ചെയ്യാൻ പറ്റുമോ ആ അഡ്രസ്സ് ഞാനൊന്ന് പറയാം നിങ്ങളൊന്ന് നോട്ട് ചെയ്യുമോ ആ തിരുവങ്ങാട് ആണ് വരുന്നത് അതായത് തലശ്ശേരിയിൽ നിന്ന് തിരുവങ്ങാട് റോഡിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് ആ അതിന് ഓപ്പോസിറ്റ് രണ്ടാമത്തെ വീട് ആ ഇതിന് നിങ്ങള് കാഷ് ഓൺ ഡെലിവെറി ആണോ അല്ലെങ്കില് ഗൂഗിൾ പേയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതിയോ ഓക്കെ ഞാൻ ഗൂഗിൾ പേ ചെയ്യാം നിങ്ങളെ ഈ നമ്പർ അല്ലേ വരുന്നത് ഗൂഗിൾ പേൻ്റെ ആ അങ്ങനെയാണെങ്കിൽ രണ്ട് ബിരിയാണിയുടെയും പേയ്മെൻ്റ് ഞാനിപ്പോൾ തന്നെ ചെയ്യാം എനിക്ക് നിങ്ങള് എൻ്റെ ഇതിലേയ്ക്കും പിന്നെ അഞ്ചുവിൻ്റെത് ഞാനിപ്പോൾ പറഞ്ഞു തന്ന അഡ്രസ്സിലേക്കും ഡെലിവെറി ചെയ്തു തരണം ഓക്കെ ശരി ശരി ഞാൻ പേയ്മെൻ്റ് ഇപ്പോൾ തന്നെ ചെയ്യാം ശരി താങ്ക് യു